നമ്മുടെ പ്രദേശത്ത് പ്രധാനമായും ഐ സി എസ് സി സി ബി എസ് ഇ സ്റ്റേറ്റ് എന്നി സ്കൂളുകളാണ് വരുന്നത് അതിൽ ഐ സി എസ് സിക്കും സി ബി എസ് സിക്കും വളരെ ഒരു

വരുന്നുണ്ട് നല്ല ഫീസ് വരുന്നുണ്ട് ഐ സി എസ് സിക്കും സി ബി എസ് സിക്കും അത് ബുക്കിൻ്റെ ചിലവും അഡ്മിഷൻ ഫീസും സെമസറ്റർ അല്ലെങ്കിൽ ടേം ഫീസ് ബസ്സ് ഫീസ് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ പൈസ മുടക്കുവാൻ ഇടയാവുന്നുണ്ട് ഐ സി എസ് സിലും സി ബി എസ് സിലും ഐ സി എസ് സി സി ബി എസ് സി വെച്ച് നോക്കുമ്പോൾ ഐ സി എസ് സി കുറച്ചും കൂടി തുക വരുന്നുണ്ട് അഡ്മിഷൻ്റെ കാര്യത്തിൽ സ്കൂൾ പ്രവേശനത്തി ൻ്റെ കാര്യത്തിൽ ഐ സി എസ് സിക്ക് വളരെയധികം ഫീസ് വരുന്നുണ്ട് കാരണം അവിടെ അവർ അതുപോലത്തെ സർവീസ് ആണ് അവർ നമുക്ക് തരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി പലവിധം ഭാഷകൾ അവിടെ അവർ പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ഐ സി എസ് സി സി ബി എസ് സി സ്കൂളുകളിൽ ടീച്ചർമാരുടെ സാലറി അല്ലെങ്കിൽ ടീച്ചർമാരുടെ ശമ്പളം കൊടുക്കുന്നത് അവിടുത്തെ സ്കൂൾ മാനേജ്മെൻ്റാണ് അതിനാൽ തന്നെ കുട്ടികളിൽനിന്ന് ആ ഒരു തുക മേടിക്കേണ്ടി വരുന്നു അതുമാത്രമല്ല അവർ തരുന്ന സ്കൂളിൽ നിന്നു തരുന്ന പാഠങ്ങൾ സ്റ്റേറ്റ് സ്കൂളുകളെ വെച്ചു നോക്കുമ്പോൾ വളരെ അധികം മെച്ചപ്പെട്ടതാണ് ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ സമ്മർദ്ദമായി പഠിക്കുവാൻ ഐ സി എസ് സി സി ബി എസ് സി സ്കൂളുകളിൽ സാധിക്കുന്നത് അതുപോലെ അവർ തരുന്ന സർവീസുകൾ കാരണം ആ ഒരു ഐ സി എസ് സി ബി എസ് സി എന്നു പറയുന്ന ബിൽ നല്ലൊരു തുക വരുന്നുണ്ട് പിന്നീട് നമ്മൾ സ്റ്റേറ്റ് സ്കൂളുകളിൽ വെച്ചു നോക്കുമ്പോൾ അവിടെ ഈ ഈ തുക വരുന്നില്ല കാരണം ഗവൺമെൻ്റാണ് അവിടെ ടീച്ചർമാർക്കും കുട്ടികളും പൈസ കൊടുക്കും ഗവൺമെൻ്റ് നോക്കും ഇപ്പോൾ കുട്ടികൾക്ക് അഡ്മിഷൻ ഫീസ് വരുന്നതൊരു അമ്പത് നൂറ് ആ ഒരു എമൗണ്ടൊക്കെയേ വരുന്നുള്ളു പിന്നീട് ബുക്കിൻ്റെ കാര്യത്തിലും ടേം ഫീസ് പി ടി എ ഫണ്ട് അങ്ങനെ ചെറിയ ഒരു അമ്പത് നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് കൂടിപ്പോയാൽ അഞ്ഞൂറ് ആ ഒരു ആ ഒരു ഏരിയയിൽ ആ ഒരു അത്ര ഇത് തുകയേ വരുന്നുള്ളു നമുക്ക് ഐ സി എസ് സി വെച്ചു നോക്കുമ്പോൾ ഐ സി എസ് സി സി ബി എസ് സി ഒക്കെ ആണെങ്കിൽ അവർ നല്ല തുക ആവശ്യപ്പെടും സ്കൂൾ പ്രവേശനത്തിൻ്റെ സ്കൂൾ പ്രവേശനത്തിൻ്റെ കാര്യത്തിലാണ് ടി സി അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു അഡ്മിഷൻ ഫീസ് കാണും അതായത് സ്കൂൾ പ്രവേശന തുക സ്കൂൾ പ്രവേശന തുക ഐ സി എസ് സി സി ബി എസ് സികൾക്കാണ് തുക കൂടുതൽ അത് ഇപ്പോൾ അങ്ങനെ പറയാമെന്നു വെച്ചാലൊരു ആയിരം ഇരുന്നൂറ് രണ്ടായിരം ആ ഒരു എമൗണ്ടൊക്കെ വരുന്നു സ്റ്റേറ്റിൽ ആ ഒരു എമൌണ്ട് വരുന്നില്ല